ഹലോ ആ അതെ ഏച്ചി ടെസ്സ ചേച്ചിയാണോ ഇത് ആ ആ എന്താ പറ്റിയത് ചേച്ചി എന്തു പറ്റി അതെ ആ അതെന്താ ആയുർവേദത്തിൽ കാണിക്കുന്നത് വേറെ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് ആ ഇതിന് ആ ആണോ ആ ഓക്കെ ആ ഇവിടെ അടുത്തൊരു ഉണ്ടേച്ചി ആ പങ്കജകസ്തൂരി അവിടേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഏൻ്റി പോയിരുന്നു ആ ആൻ്റിക്കൊരു ട്രീറ്റ്മെൻ്റുണ്ടായിരുന്നു കുഴപ്പം ഇല്ല പുള്ളിക്കാരി നല്ലതായിട്ട് പോയിട്ടൊക്കെ നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത് റേറ്റ് വലിയ കുഴപ്പം ഇല്ലയെന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം ആ പിന്നെ റേറ്റ് വലിയ പ്രശ്നമില്ല പക്ഷേ അവിടെ പത്ത്യമൊക്കെയുണ്ട് അതൊക്കെ നോക്കാൻ പറ്റുമോ ആ ആ ആ ഇറച്ചിയും മീനുമൊന്നും കൂട്ടാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ആ പത്ത്യമല്ലേ ഒരു കുറച്ചു നാൾ ഇതൊക്കെ എടുക്കണം എന്നാലേ അതിന് ആ മരുന്ന് ആയുർവേദ ഇപ്പം ഒരു ഒരായ്ച്ചയൊക്കെയാണ് എൻ്റെ ആൻ്റി കിടന്നതേ ആ പുള്ളിക്കാരി ഒരാഴ്ച്ചയായിരുന്നു ആ ഇപ്പം നല്ല നല്ല സുഖമായിട്ടിരിക്കുന്നു കുഴപ്പം ഇല്ല എന്നാണിപ്പം പറഞ്ഞത് ആദ്യം കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പം ഇല്ല നല്ലതായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ പത്ത്യമൊക്കെ ഉണ്ടായിരുന്നു പത്ത്യമൊക്കെയുണ്ട് ഒരു എനിക്കന്നൊര് രണ്ടായിരം മൂവായിരത്തിന് അടുപ്പിച്ചായെന്നാണ് തോന്നുന്നത് കേട്ടോ ഏച്ചി ആ ഇത്രയും ആ അത് കുഴപ്പം ഇല്ല നമ്മൾക്കത് ചേച്ചിയുടെ ചിലപ്പം ആൻ്റിയുടെപോലെ ആയിരിക്കില്ലല്ലോ ചേച്ചിയുടെ ട്രീറ്റ്മെൻ്റേ ചിലപ്പോൾ അതിൽ കുറയാൻ സാധ്യത ഉള്ളൂ അത് നോക്കണ്ട ആ ആ എന്നാൽ നോക്കാം നമുക്ക് അത് നമുക്ക് വിളിച്ച് ഒരു പ്രാവശ്യം വന്ന് നോക്കാമേ ആ പിന്നെ ഇംഗ്ലീഷ് ആ അതും അത് അതിൻ്റെ അപ്പുറത്തൊരെണ്ണം കൂടെയുണ്ട് ആ കിള്ളിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഒരു ഹോസ്പിറ്റലുണ്ട് ഇതിൻ്റെ തന്നെ വേറൊരു ഇതാണ് അവിടെയും നല്ല രീതിയിലാണ് ഒത്തിരി പേര് രോഗികളൊക്കെ പോവാറുണ്ട് കണ്ണിൻ്റെ തന്നെയാണവിടേയും മെയിനായിട്ട് കണ്ണിൻ്റെ തന്നെയാണവിടേയും ഉള്ളത് പിന്നെ ചേച്ചിക്ക് ഇതു തന്നെ പറ്റുള്ളൂ ഇംഗ്ലീഷിന് മരുന്നോ അതു പറ്റില്ല ആ അലർജിയാണെങ്കിൽ അത് നമുക്കിത് ആ ആ എന്നാൽ പിന്നെ ആയുർവേദം ആയുർവേദം തുടങ്ങുന്നതു തന്നെയായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മൾക്കത് പോയി ഒരുദിവസം വന്നാൽമതി ഞാനുംകൂടി വരാം ചേച്ചിയുടെ കൂടെ ആ ആ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ വിളിച്ചവരോടൊന്ന് ചോദിക്കാം എന്നാൽ ഡോക്ടറുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ദിവസം നമുക്കെന്നാൽ പോവാം ഓക്കെ അങ്ങനെ ചെയ്യാം ആ അറിയിക്കാം ആ അറിയിക്കാം അറിയിക്കാം ഓക്കെ ഓക്കെ